നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു ഗ്രന്ഥശാലയാണ് മഹാത്മാ ഗ്രന്ഥശാല അവിടെ ധാരാളം എഴുത്തുകാരുടെയും സാഹിത്യകാരന്മാരുടെയൊക്കെ പുസ്തകങ്ങൾ ഒരുപാട് ഉണ്ട് അപ്പോൾ സമയംകിട്ടുമ്പോഴൊക്കെ ഞാൻ അവിടെ ചെന്നിരുന്നു വായിക്കാറുമുണ്ട് ഒരുപാട് നല്ല നല്ല പുസ്തകങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് കൊച്ചുകുട്ടികൾ ഒക്കെ മുതൽ മുതിർന്ന വലിയ പ്രായമുള്ളവർ വരെ അവിടെ വന്നിരുന്നു ഇതൊക്കെ വായിക്കാറുണ്ട് ഞാൻ ഞാൻ പോയി കഴിഞ്ഞാൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പുസ്തകങ്ങളാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് എടുത്ത് എനിക്ക് വായിക്കാൻ ഇഷ്ടം ബഷീറിൻ്റെ പുസ്തകങ്ങളാണ് ഞാൻ ഞാൻ അതൊക്കെ അതാണ് ആദ്യം വായിക്കുന്നത് നമ്മുടെ പിന്നെ ഹാസ്യ മായ രീതിയിൽ കൂടി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ബഷീറിൻ്റെ പുസ്തകത്തിൽ കൂടുതൽ ഉള്ളത് അപ്പം അത് വായിക്കാനാണ് ഇഷ്ടം പിന്നെ ഒ യെൻ വി കുറുപ്പിൻ്റെ കവിതകൾ ഒക്കെ വായിക്കാറുണ്ട്